കുടുംബത്തിലെ സ്ത്രീകള് മത്സ്യബന്ധനത്തിന് പോകുന്ന ഭർത്താക്കന്മാർക്ക് രാവിലെ ആഹാരം വെച്ച് കൊടുത്ത് രാവിലെ കാപ്പിയുണ്ടാക്കി അവർക്ക് കൊടുത്ത് ആഹാരം പാത്രത്തിലാക്കി കയ്യിൽ കൊടുത്ത് വിട്ട് അവരെ സഹായിക്കാറുണ്ട് എന്നാല് അവർക്ക് പോകാൻ പറ്റില്ല വീട്ടില് കുഞ്ഞുങ്ങളെ നോക്കണം വീട്ട്കാര്യങ്ങള് വീട്ട്കാര്യങ്ങള് നോക്കണം കുഞ്ഞുങ്ങളെ സ്കൂളിൽ പോകുന്നവരുണ്ട് സ്കൂളിൽ പോയിട്ട് വരുമ്പഴത്തേനും അവർക്ക് ആഹാരം കൊടുക്കണം അവരെ കുളിപ്പിച്ച് വൃത്തിയാക്കി സ്കൂളിൽ പറഞ്ഞ് വിടണം അപ്പം അതിൻറ്റെതൊക്ക ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഭർത്താക്കന്മാര് പോയിട്ട് വരുമ്പഴത്തേനും അവർക്ക് ആഹാരം ഉണ്ടാക്കി വെക്കണം വസ്ത്രങ്ങൾ അലക്കി കൊടുക്കണം അങ്ങനത്തേതായ വീട്ടുജോലികള് ഒരുപാ ഒരുപാടുണ്ട് അതുപോലെതന്നെ അവരും വലയിട്ട് വരുമ്പഴത്തേനും വല കീറിയിട്ടുണ്ടെങ്കിൽ അവര് തയ്ക്കാൻ ചെല്ലുമ്പോൾ അതൊന്ന് പിടിച്ച് കൊടുക്കുകയോ തയ്ക്കുകയോ അങ്ങനെയൊക്കെ സ്ത്രീകള് ചെയ്യാറുണ്ട് പിന്നെ വള്ളം കയറ്റ് വെക്കുന്ന സമയത്ത് വള്ളപ്പണി കഴിയുമ്പഴത്തേന് വള്ളം കെട്ടികഴിയുമ്പഴത്തേനും അവരുടെ കൂടെ സ്ത്രീകള് ചെന്ന് നെയ്തൊക്ക നെയ്യൊക്കെ തേച്ച് അതിന് വേണ്ടുന്ന കാര്യങ്ങള് ചെയ്ത് കൊടുക്കാറുണ്ട് അത് മൂടിവെക്കാനായിട്ട് വള്ളം മൂടിവെക്കാനായിട്ട് അങ്ങനെ സഹായിക്കും അതിന് തുണ്ടും ചകിരിയും ഒക്കെ വേണം അപ്പോൾ അതൊക്കെ കൊണ്ട് അവരുടെ അടുത്തുകൊണ്ട് കൊടുക്കണം പിന്നെ വള്ളം കെട്ടുകാർക്ക് വള്ളം കെട്ടാൻ ആൾക്കാര് വരും അപ്പോൾ അവർക്ക് ചോറും കറിയൊക്കെ വെച്ച് അവർക്ക് സ്ത്രീകളാണ് നമ്മുടെ കുടുംബത്തിലെ സ്ത്രീകളാണ് അതെല്ലാം ഉണ്ടാക്കികൊടുക്കുന്നത് പിന്നെ അതുപോലെതന്നെ പ്രത്യേകമായിട്ട് ഇങ്ങനെ അവര് മീന് കൊണ്ട് വന്ന് വെക്കുമ്പഴത്തേനും ആ മീനെല്ലാം തിരഞ്ഞ് തരംതിരിച്ച് തരംതിരിച്ച് ഐസ് ഇട്ട് വെക്കണ്ടതാണേൽ ഐസ് ഇട്ട് വെച്ച് ഐസ് ഇട്ട് വെച്ചുകൊടുക്കും ഐസ് ഇട്ട് വെക്കും പിന്നേ കൊടുക്കാനാണെങ്കിൽ സ്ത്രീകള് സഹായിക്കും സ്ത്രീകള് ചുമന്ന് കൊണ്ടുപോയി പിന്നെ വിൽക്കും അങ്ങനൊക്കെ സ്ത്രീകള് ഒത്തിരി സഹായിക്കും ചെയ്യാറുണ്ട് അവ തരംതിരിച്ച് ഐസ് ഇട്ട് വെച്ച് കുറച്ചെടുത്ത് വിൽക്കാനായിട്ട് കൊണ്ടുപോയി ബാക്കിയുണ്ടെങ്കിൽ അത് ഉണക്കി ഒക്കെ അങ്ങനെയൊക്കെ സ്ത്രീകള് ചെയ്യാറുണ്ട് പിന്നെ കടലില് പോകാത്തതെന്ന് വെച്ചെന്നാൽ അല്ല സ്ത്രീകള് അങ്ങനെ കടലില് ഇറങ്ങാൻ പാടില്ലല്ലോ അവർക്ക് ആ വള്ളത്തേൽ കേറിയിരുന്നാൽത്തന്നെ ആ വള്ളം മറിഞ്ഞ് പോയെന്നാൽ മറിഞ്ഞ് വള്ളത്തേന്ന് വീണാൽ പണ്ടുള്ളവര് പറയും വള്ളത്തേന്ന് വീണാൽ മരിച്ചില്ലെങ്കിൽ തല്ലിക്കൊല്ലണമെന്ന് അങ്ങനെയൊക്കെ പറയുന്നത് പറയ് പറയുമായിരുന്നു അതുപോലെതന്നെ സ്ത്രീകൾ സ്ത്രീകൾ അങ്ങനെ കടലിൽ പോകാൻ പാടില്ല എന്നാണ് പറയുന്നത് പൊതുവേ ആൾക്കാര് പറയുന്നത് സ്ത്രീകള് അങ്ങനെ കടലിൽ ഇറങ്ങാൻ പാടില്ല കടലിൽ വള്ളത്തേൽ അങ്ങ് പോകാൻ പാടില്ലെന്നാണ് പറയുന്ന് പിന്നേ കടലിൽ പോകുന്ന ആൾക്കാര് ദിവസങ്ങളോളം കഴിഞ്ഞാണ് പിന്നെ അവര് മൽസ്യബന്ധനത്തിന് പോയെന്നാൽ ദിവസങ്ങളോളം കഴിഞ്ഞാണ് അവര് കടലിൽ നിന്ന് വരുന്നത് അത്രയും ദിവസമൊക്കെ സ്ത്രീകൾക്ക് പോകാൻ പറ്റില്ല അവർക്ക് അവരുടെ ആരോഗ്യത്തെ അത് ബാധിക്കും അപ്പോൾ അതുകൊണ്ട് സ്ത്രീകൾ അങ്ങനെ പോകാൻ പോകാറില്ല അങ്ങനെ അത്രയും ദൂരം കടലില് ദൂരം പോകാൻ പറ്റുകയില്ല അത്രയും ദിവസങ്ങള് എടുത്ത് കടലില് യാത്ര ചെയ്ത് അവിടെ മീൻപിടിക്കാൻ പോകാൻ പറ്റത്തില്ല അതുപോലെതന്നെ പീരിയഡ് ആയാൽ അങ്ങനെ കടലിൽ ഇറങ്ങാൻ പറ്റുകയില്ല അങ്ങനെയെക്കെ സ്ത്രീകൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് അത് കൊണ്ടാണ് സ്ത്രീകള് മൽസ്യബന്ധനത്തിന് കടലിൽ പോകാത്തത് അല്ലാതെ ഇവിടെ വീട്ടിൽ കൊണ്ട് വരുന്ന മീനുകൾ മീന് എന്തൊക്കെ ചെയ്യണോ അതൊക്കെ സ്ത്രീകള് സഹായിക്കാറുണ്ട് മീന് വേണ്ടുന്ന രീതിയിൽ തരംതിരിക്കുകയും തരംതിരിക്കുകയും പിന്നെ ഫ്രീസറിൽ വെയ്ക്കുകയും ഐസ് ഇട്ട് വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത് കൂടുതലും സ്ത്രീകളാണ് അങ്ങനെ സ്ത്രീകള് ഒരുപാട് കാര്യങ്ങള് ചെയ്യുന്നുണ്ട് സ്ത്രീകൾ ഒരുപാട് കാര്യങ്ങള് അവർക്ക് വേണ്ടുന്ന സഹായങ്ങളെല്ലാം നമ്മളുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടുന്ന സഹായങ്ങളെല്ലാം സ്ത്രീകള് അവരോടൊപ്പം അവരോടൊപ്പംതന്നെ നിന്ന് ചെയ്യുന്ന ഒത്തിരി ഒത്തിരി സ്ത്രീകള് ഉണ്ട് അവര് തലയിൽ ചുമന്ന് ബക്കറ്റ് ചരുവത്തിനകത്ത് വെച്ച് ചുമന്ന് വീടുകൾ വീട് വീടാന്തരം കയറിയിറങ്ങി മൽസ്യങ്ങൾ വിറ്റ് തീർത്ത് കൊണ്ടുവരുന്ന വിറ്റിട്ട് വരുന്ന സ്ത്രീകളും നമ്മുടെ നമ്മുടെ ഇടയിലുണ്ട് അങ്ങനെ ഒരുപാട് സ്ത്രീകള് നമ്മുടെ ഇടയില് അവര് കടപ്പുറത്ത് പോയി മീനെടുത്തിട്ടാണ് അവര് അങ്ങനെ ചില സ്ത്രീകള് ചെയ്യുന്നുണ്ട് മീനെടുത്ത് വിൽക്കാൻ പോകുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് സ്ത്രീകള് കുറെയൊക്കെ സ്ത്രീകള് ഇങ്ങനെയെക്കെ കഷ്ടപ്പെട്ട് ചെയ്യുന്നുണ്ട് സ്ത്രീകള് ഒരുപാട് അവ അവരെ സഹാ ഭർത്താക്കന്മാരെ ഒരുപാട് സഹായിക്കുന്നവരുണ്ട് അവർക്ക് അവര് ചിലപ്പോൾ പോയിട്ട് വരാൻ താമസിക്കുമ്പോൾ കണ്ണീരോടേയും പ്രാർത്ഥനയോടും കൂടെ അവര് അതുങ്ങളെ നോക്കി വീട്ടിൽ പ്രാർത്ഥനയോടെ ഇരിക്കുന്ന സ്ത്രീകളും ഉണ്ട് പിന്നെ മൽസ്യബന്ധനത്തിന് പോകാത്ത കടലില് ഇങ്ങനെ പോകാൻ പറ്റാത്തത് കൊണ്ടാണ് അവർക്ക് ആരോഗ്യ കുറവ് അങ്ങനെ ഒക്കെ ഒത്തിരി പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ് അവര് കടലിൽ പോകാത്തത് കടലിൽ അങ്ങനെ ഇതുവരെയും സ്ത്രീകള് ഇറങ്ങി ഇറങ്ങി ഇങ്ങനെ മൽസ്യബന്ധനത്തിന് പോയിട്ടില്ല അതുകൊണ്ടാണ് അവര് പോവാ പോകാതിരിക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം അവരുടെ പങ്കാളിത്തം ഉണ്ട്